ഹലോ ഇതു ഫർസാ ഹോട്ടലല്ലേ ഇന്നു വൈകുന്നേരം ഒരു ഏഴു മണിയാകുമ്പോഴത്തേക്ക് ഒരു നാലു ബിരിയാണി വേണ്ടിയിരിന്നു എൻ്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ട് അതിനുമുമ്പ് ഒരീസം നിങ്ങളെ ഹോട്ടലിൽത്തെ ഈ ബിരിയാണി കഴിച്ചിട്ട് അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ആ ബിരിയാണിതന്നെ ഇന്നും വേണമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ കടേക്കുതന്നേ വിളിച്ചത് പിന്നേ എന്താ പറയുക അവിടെ വേറെ സ്പെഷ്യലായിട്ടു വേറെ എന്താ ഉള്ളത് ബ്രോസ്റ്റോ അല്ലെങ്കിൽ കുഴിമന്തി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ഉള്ളേ വച്ചാൽ നിങ്ങൾ അതു പറയണം പിന്നെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ശരിക്ക് വീടെവിടേന്നുള്ളതു ഞങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ പയ്യനാട് ഇവിടെ പിലാക്കൽ എന്നു പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങടെ വീട് അപ്പോൾ നിങ്ങൾ എന്തയാലും വരുന്ന സമയത്ത് ഒന്ന് വിളിക്കുക അന്നേരം പറഞ്ഞുതരാട്ടോ എവിടെ എന്നുള്ളത് പിന്നേ ഐസ്ക്രീം അങ്ങനെയെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ചോളൂട്ടോ